ഗ്രാമീണ നഗര അധ്യാപന രീതികളെ കുുറിച്ചുള്ള അഭിപ്രായം അത് എന്താണ് എന്റേത് എന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും നല്ല അഭിപ്രായമാണ് കാരണം ഇന്നത്തെ ടീച്ചർമാര് എത്രയോ നല്ല അധ്യാപകരാണ് പഴയ കാലങ്ങളിലുള്ള അദ്ധ്യാപകരൊക്കെ എന്നു പറയുകയാണെങ്കിൽ അവര് വരും പുസ്തകം വായിക്കും പോവും അല്ലാതെ കൂടുതലായിട്ടു കുട്ടികളെ പഠിപ്പിക്കുക എന്നൊരു രീതി കുറവായിരുന്നു പഴയ കാലത്ത് വരുക ശമ്പളം വാങ്ങുക പോവുക പക്ഷെ പിന്നീട് അതിനുശേഷം നമ്മളൊരു നയൻറ്റീസ് ആ ഒരു കിഡ്സിന് ആ ഒരു തൊണ്ണൂറുകളിലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരം കിട്ടീയിട്ടുണ്ട് അവരെല്ലാം എന്താണു പറയുക പഠിക്കാഞ്ഞാൽ അടിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും ഈ അധ്യാപകരെ പേടിച്ചിട്ടും ഒക്കെത്തന്നെ കുട്ടികള് പ ഠിക്കുന്ന ഒരു രീതിയും മറ്റുമെല്ലാം ഉണ്ടായിരുന്നു ഇന്നത്തെ രീതിക്കു നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഈ നാട്ടിലുള്ള അധ്യാപകരാവുമ്പോള് പിന്നെ കുറയൊക്കെ ഇതുപോലത്തെ രീതിയിൽ കുറച്ചൊന്നു പേടിപ്പിച്ചാല്പ്പറ്റും പക്ഷേ ഇന്നിപ്പോള് വടിയെടുക്കാൻ പറ്റുകയില്ലല്ലോ അതൊരു വിഷയമല്ലേ വടിയെടുത്തടിക്കാൻ പാടില്ല കുട്ടികളെ അതുകൊണ്ടുതന്നെ കുട്ടികള് ഒരുപാട് കേടും വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ഗ്രാമത്തിലുള്ള അല്ലെങ്കില് നമ്മുടെ ഈ നാടൻ നാട്ടിലുള്ള ആളകളൊക്കെ ഒരുപാടു മാറിയിട്ടുണ്ട് അതേ സമയം പട്ടണങ്ങളിലും മറ്റും പുറത്ത് ഈ വലിയ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികളും അവിടെയുള്ള അധ്യാപകരുടെ രീതികളും തമ്മിൽ ഒരുപാടു മാറ്റങ്ങളുണ്ട് അവര് നേരെവാ നേരെ പോ ഇംഗ്ലീഷല്ലാതെ പറയാൻ പറ്റുകയില്ല മലയാളത്തിന അവിടെ ഒരു പ്രാധാന്യവിമില്ല അവര് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതും ഇംഗ്ലീഷിനായിരിക്കും മറ്റു ഭാഷകൾക്കായിരിക്കും നമ്മുടെ മാതൃഭാഷയായ മലയാളം എന്നൊരു രീതിയേക്കാൾ കൂടുതൽ മറ്റു ഭാഷകൾക്കും മറ്റു കാര്യങ്ങൾക്കും മുൻഗണന നൽകി നമ്മുടെ ഇന്നത്തെ കുട്ടികളെ മറ്റൊരു രീതിയിലേക്ക് അവര് വാര്ത്തെടുക്കും പക്ഷേ അവർക്കു പുറമേയുള്ള ലോക വിവരങ്ങൾ കുറവായിരിക്കും അത്തരത്തിലുള്ള മക്കള്ക്ക് അവർക്കു പഠിപ്പുണ്ടാവും പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം അറിയാം സ്കൂളുകളിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്ന ഭാഷകൾ വായിക്കാൻ മറ്റുമെല്ലാം അറിയാം പക്ഷേ സാധാരണ നാട്ടുംപുറത്തെ കാര്യങ്ങളും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല എന്നാൽ ഈ ഗ്രാമങ്ങളിലുള്ള ടീച്ചേഴ്സ് പുറത്തിറങ്ങി കുട്ടികളെ പുറംലോകം കാണിച്ചുകൊണ്ട് ഈ സ്കൂളെന്തു പരിസരം എന്ത് വീടേതു നാടേത് എല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും നമ്മുടെ ടീച്ചേഴ്സിനുണ്ടായിരിക്കുക പക്ഷെ പട്ടണങ്ങളിലതല്ല